ഇരുചക്ര ഇരുചക്ര വാഹങ്ങൾ ഓടിക്കുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ഹെൽമെറ്റ് ധരിച്ചിരിക്കണം നമ്മൾ ഓവർ സ്പീഡ് എടുക്കരുത് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം മറ്റു വാഹനങ്ങൾക്ക് അതൊരു ദോഷമായി തീരരുത് മറ്റു അപകടങ്ങൾ നമ്മൾ വരുത്തി വയ്ക്കരുത് നമ്മൾ റോഡ് കുറുകേ എന്നാൽ റോഡ് ക്രോസിങ്ങിന് ഇങ്ങനെ നിൽക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഓവർസ്പീഡ് കൊണ്ട് അവർക്ക് ഒരു അപകടം ഒരിക്കലും വരുത്തരുത്

നമ്മൾ നിയമങ്ങൾ മുഴുവൻ നിയമങ്ങളെല്ലാം പാലിച്ച് നമ്മൾ വണ്ടിയോടിക്കാവുള്ളു

നമ്മുടെ ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തോടെ വേണം നമ്മൾ വണ്ടി ഓടിക്കുവാനായിട്ട്